ആ ഞാൻ ആക്ച്വലി ഒരു ഈ കോക്കനട്ടിന്റെ കാര്യം തേങ്ങേടെ കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് നല്ല തേങ്ങ നല്ല തേങ്ങ അവിടെ ലഭ്യമാവുവൊ എന്റെ ഇപ്പം എൻറ്റൊരു എന്റെ എന്റെ മകളുടെ വിവാഹമാണ് അടുത്താഴ്ച്ച അപ്പം അതിനനുസരിച്ച് നല്ല രീതീൽ തേങ്ങ കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എനിക്ക് അതിനനുസരിച്ച് നമുക്കിപ്പം എന്നാ അതിനൊരു നല്ലൊരു ഓയിൽ കിട്ടുവാണെങ്കിലേ അതിനനുസരിച്ച് നമുക്കൊരു നല്ല വിഭവ സമൃദ്ധമായ ആഹാരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുന്നേയ്ന് കുഴപ്പവില്ലായിരുന്നേനെ തേങ്ങയായിട്ട് വേണം കാരണം എന്തുകൊണ്ടാന്നെച്ചാൽ തേങ്ങയായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടൊന്ന് ലാഭമായിരുന്നേനെ കാരണം ഇപ്പം അറിയാവല്ലോ ഇപ്പം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അതിൻറ്റകത്ത് തന്നെ അപ്പോൾ അതൊന്നാ കൊടുക്കുവാണെങ്കിൽ നമുക്കതൊന്ന് സ്പീഡിലായിട്ട് വെക്കാമായിരുന്നു എല്ലാം അത്രേ ആകുമോ അത്രേ ആകുമോ ആ ഓ ആ അതെയോ ആ അത് നന്നായി അത് നന്നായി കാരണം അപ്പം അതിനനുസരിച്ചെനിക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നേ കൊടുക്കാമല്ലോ അപ്പം അപ്പം ഇന്നെപ്പോഴാണ് ഞാൻ വരേണ്ടത് ഇതക്കെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി എപ്പോഴാണ് ഞാൻ വരേണ്ടത് ഫങ്ഷൻന്ന് പറയുമ്പം ഇപ്പം ഞങ്ങൾക്കിനി ഒരു രണ്ട് മാസം കൂടിയുണ്ട് അപ്പം ഞാനൊരു ഒരു മാസം മുമ്പേ അവിടെത്തുവാണെങ്കിലേ ഇത് ഇത് നോക്കാമായിരുന്നെല്ലാം എങ്ങനെ നല്ലതായിട്ട് പോകുന്നുണ്ടോ കാര്യങ്ങളെന്ന് ആ ഒരു അഞ്ചൂറ് അഞ്ചൂറ്റി അൻപത് അതെ അതെ ആ ഓക്കേ